നമ്മുടെ വിനോദസഞ്ചാരത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് നമ്മുടെ കലാരൂപമായ നൃത്തം തന്നെയാണ് നൃത്തത്തിന് വിവിധ ഭാ ഭാവങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ഉണ്ട് കാരണം നമ്മുടെ നല്ല നൃത്ത കലാരൂപങ്ങളായ പിന്നെ കഥകളി മോഹിനിയാട്ടം തുള്ളൽ പിന്നെ അതുപോലെ ഉള്ളതൊക്കെ ഉള്ളതും അത് അതുപോലെ തന്നെ പിന്നെ തമിഴ്നാട്ടിലെ കലാരൂപമായ ഭരതനാട്യം മണിപ്പൂരിലെ കലാരൂപമായ മണിപ്പൂരി ഒറീസ്സയിലെ കഥക് ഇങ്ങനെ പല രീതിയിലുള്ള വിവിധങ്ങളായ യക്ഷഗാനം യക്ഷനൃത്തം എങ്ങനെ ക പല ഡാൻസ് കലാരൂപങ്ങൾ നമ്മുടെ അത് നമ്മുടെ ഈ കലാരൂപങ്ങൾ നമ്മുടെ ഓരോ പ്രാദേശികമായ ആഘോഷങ്ങളിലും ഒക്കെ നമ്മൾ പ്രതിഫലിക്കാറുണ്ട് ഇതൊക്കെ കാണാനും ഇതൊക്കെ പഠിക്കാനും ഒത്തിരി വിദേശികൾ ഇവിടെ വരാറുണ്ട് അവർ ഒക്കെ ഈ കലാരൂപങ്ങൾ ഒത്തിരി ആകർഷകരാകാറുണ്ട് നമ്മുടെ വിനോദസഞ്ചാരത്തെ ഒരു നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നതും വളർത്തിയിരിക്കുന്നതും നമ്മുടെ കലാരൂപമായ ഡാൻസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു